പക്ഷികളെ ആകർഷിക്കുന്നതിനായി നമ്മൾ വീട്ടുമുറ്റത്തുവെച്ച് മൺപാത്രങ്ങളിൽ ധാന്യങ്ങളും വെള്ളവും വയ്ക്കാറുണ്ട് ചെറിയ ചെറിയ മരച്ചില്ലകളിൽ ഈ മൺപാത്രങ്ങളിൽ വെള്ളം ഒഴിച്ച് അതിങ്ങനെ കെട്ടിത്തൂക്കി വയ്ക്കാറാണ് പതിവ് ആ സമയങ്ങളിൽ പക്ഷികൾ വരികയും ആ ധാന്യങ്ങൾ ഭക്ഷിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ആനന്ദം തന്നെയാണ് പൂന്തോട്ടങ്ങളിലേക്ക് ആ പൂക്കളെ ആകർഷിക്കാനായി തേൻ നുകരുവാനായി വരുന്ന പൂമ്പാറ്റകളും വണ്ടുകളും ഒക്കെ കാണുന്നത് മനസിന് കുളിർമ നൽകുന്ന ഒന്ന് തന്നെയാണ് പക്ഷികളെ ആകർഷിക്കാനായി പ്രധാനമായിട്ടും ചെയ്യുന്നത് ദാനങ്ങൾ ധാന്യങ്ങൾ വിതറിച്ചുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ആ ധാന്യങ്ങൾ ഭക്ഷിക്കുവാനായിട്ടും വെള്ളം കുടിക്കുവാനായിട്ടും പക്ഷികൾ ഓടി വരുന്നത് കാണാൻ പ്രത്യേക ഭംഗി തന്നെയാണ്